ഇരുപത് അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് നാല് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഇരുപത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഏഴ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി പത്ത്